സർക്കാർ ഓഫീസുകൾ സ് നൽകുന്ന സേവനം നല്ലത് തന്നെയാണ് കാരണം ഞങ്ങൾക്കിപ്പോൾ പെ പെട്ടെന്നെന്തെങ്കിലും അത്യാവശ്യം ആയിട്ട് പോവാണെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കൺസിഡറെയ്യാറ്ണ്ട് അതുപോലെ തന്നെ നമ്മളെ മാത്രമല്ല മൊത്തം എല്ലാവരിനേം കൺസിഡറെയ്യാറൊക്ക്ണ്ട് പുതിയ സ്കീമുകള് കൊണ്ട് വരാറുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടീട്ട് അല്ലെങ്കി വിദ്യാഭ്യാസ സ്കീമ് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് അ അങ്ങനെയുള്ള സ്കീമ് സൈക്കിള് അങ്ങനെയുള്ള സ്കീമുകളൊക്കെ കൊണ്ട് വരാറുണ്ട് പിന്നേന്ന് പറഞ്ഞ ആ വയസ്സായ അമ്മമാർക്ക് പെൻഷൻ അങ്ങനെയുള്ള സ്കീമുകൾ ഇപ്പൊൾ കൊണ്ട് വരാറ്ണ്ട് കുഴപ്പം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല വശങ്ങളും ചെയ്തിട്ടുണ്ട് കുറച്ച് ചീത്ത വശങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ നല്ല വശങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മടെ ജില്ലയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ കൊണ്ട് വന്നിട്ടുള്ളതും എല്ലാവരെ ലൈഫിലെ എല്ലാവരിനേം കൺസിഡറെയ്യുന്നതും ഒരേ പോലെ കൺസിഡറെയ്യാൻ പറ്റുന്നതും ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ആണെന്ന് പറയാം അത്കൊണ്ട് അതിൻ്റെ സേവനം നല്ലത് തന്നെയാണ്